ആ വരൂ ഇരിക്കൂ ഓക്കെ ഇരിക്കൂ ഇരിക്കൂ

ആ ഓക്കെ എവിടെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടോ അതെ അല്ലെ ഓക്കെ നമുക്ക് ഇപ്പോൾ മാനേജർ പോസ്റ്റിലേക്ക് ആണ് ഇവിടെ എത്തണത് നിങ്ങൾക്ക് ഇപ്പോൾ എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ആ ഓക്കെ അപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടല്ലൊ അല്ലെ എവിടെയാ പഠിച്ചത് അതെ ഏതാ വിഷയം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അല്ലെ ആ ആ ഓക്കെ ഇപ്പോൾ അവിടെ എന്ത് ആയിട്ടാ അവിടെ വർക്ക് ചെയ്ത് ഉണ്ടായിരുന്നത് ഇൻസ്ട്രുമെൻറ്റേഷൻ കമ്പനിയുടെ അവിടെ എന്താ വർക്ക് ചെയ്ത പോസ്റ്റ് എന്ത് ആയിരുന്നു ആ ഓക്കെ അപ്പോൾ മാനേജർ പോസ്റ്റിലേക്കെന്ന് പറയുമ്പോൾ നിങ്ങളെ അടിയിൽ ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർക്കേഴ്സ് ഉണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾ അതായത് മൂന്ന് ടീം ആയിട്ട് പതിനഞ്ചിന്റെ ഒരു മൂന്ന് ടീം ആയിട്ട് ഉള്ള ഇത് ഉണ്ടാവും നിങ്ങളുടെ അടിയിൽ അപ്പോൾ അവരുടെ വർക്കും കാര്യങ്ങൾ ഒക്കെ കൃത്യം ആയിട്ട് നിങ്ങള് അസൈൻ ചെയ്ത് കൊടുക്കണം ആ വർക്ക് പ്രോപ്പർ ആയിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കണം ആ ടൈം ലിമിറ്റ് ഉണ്ടാവും ഇതിന് ഒക്കെ അതായത് ഇത്ര ടൈമിന് ഉള്ളിൽ ചെയ്ത് തീർക്കുന്ന ലിമിറ്റ് ലിമിറ്റ് ഉള്ള വർക്കുകൾ ആണ് ഓക്കെ അപ്പോൾ കൃത്യമായ ടൈം ലിമിറ്റോട് കൂടി ചെയ്യണം കാര്യങ്ങള് പിന്നെ നിങ്ങളെ സാലറി എക്സ്പെക്റ്റേഷൻ എന്താണ് അതായത് ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ മുമ്പ് എത്ര ആണ് സാലറി മേടിച്ചിട്ട് ഉണ്ടായിരുന്നത് ലാസ്റ്റ് കിട്ടിയ സാലറി എത്രയാ നിങ്ങൾക്ക് ഓക്കെ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് തെർട്ടി ഫൈവ് തൗസൻഡ് ആണ് കൊടുക്കുന്നത് മാനേജറിൻ്റ അത് നിങ്ങളെ മാനേജർ പോസ്റ്റിലേക്ക് ഫസ്റ്റ് ആയിട്ട് ആണല്ലൊ ആ മൂന്ന് മാസത്തെ പ്രൊബേഷണറി പീരീഡ് ഉണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പെർമനന്റ് ആവുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ മൂന്ന് മാസത്തെ വർക്ക് അനുസരിച്ച് ഇരിക്കും നിങ്ങളുടെ ഇൻക്രിമെൻറ്റും അതുപോലെ പെർമനെൻറ്റ് ആ അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഈ മൂന്ന് മാസത്തെ നിങ്ങളുടെ വർക്ക് പോലെ ഇരിക്കും

നിങ്ങൾ ഇങ്ങനെ ടീമിന് ഒരു ടീം ലീഡർ ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഉണ്ടോ അവിടെ ആ ഓക്കെ അപ്പോൾ ഇത് ടീം ലീഡറിൻ്റെ റോൾ തന്നെ ആണ് മാനേജർക്കും സത്യം പറഞ്ഞാൽ പക്ഷെ ഒരു മൂന്നുനാല് ടീം ഉണ്ടാവുമെന്ന് മാത്രം നിങ്ങളെ അടിയിൽ ആ മൂന്ന് ടീം ആണ് മാനേജ് ചെയ്യേണ്ടത് അത് ആദ്യത്തെ മാസം ആയതുകൊണ്ട് ആണ് പിന്നെ പിന്നെ അത് ചിലപ്പോൾ നാല് ആവാം അഞ്ച് ആവാം മാക്സിമം അഞ്ച് വരെ പോവാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഓക്കെ ആണല്ലൊ അല്ലെ ആ നമ്മള് ക്ലയൻറ്റ് ആയിട്ട് ഒന്ന് ഇവിടെ എങ്ങനെയാ താമസം നിങ്ങൾക്ക് ഇവിടെ പറ്റുമോ അതോ പുറത്ത് പോകണോ എങ്ങനെ ആണ് എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്താ പുറത്ത് പോയി വരാൻ ആണോ ആ ഓക്കെ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷിഫ്റ്റ് വർക്ക് ചെയ്യേണ്ട വരും മൂന്ന് ഷിഫ്റ്റ് ആണ് നമുക്ക് നൈറ്റ് അതായത് ഇപ്പോൾ നമ്മൾ കമ്പനിയിൽ ലേഡി ലേഡി മാനേജർമാര് ഉണ്ട് രണ്ട് പേര് ജെൻറ്റ്സ് ഇപ്പോൾ രണ്ട് ആള് ഉണ്ട് അപ്പോൾ മൂന്ന് ഷിഫ്റ്റില് അതായത് ഓഫ് ഡേ ഇണ്ടാവും നൈറ്റ് എടുക്കണവർക്ക് പിറ്റെ ദിവസം ഓഫ് ആയിരിക്കും നിങ്ങൾക്ക് തെർട്ടി ഡേയ്സ് വർക്ക് ഉണ്ടാവില്ല പക്ഷെ പേയ്മെൻറ്റ് തെർട്ടി ഡേയ്സിൻ്റ പേയ്മെൻറ്റ് ആണ് വരുക പക്ഷെ വർക്ക് നമുക്ക് മുപ്പത് ദിവസം ഉണ്ടാവില്ല അപ്പോൾ നൈറ്റ് എടുക്കണ ദിവസമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഓഫ് ആയിരിക്കും നിങ്ങൾക്ക്

അപ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങളെ ഡ്യൂട്ടി നിങ്ങൾ അസൈൻ ചെയ്ത ടീമിനെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യിക്കണം അവരെ കാര്യങ്ങള് മുഴുവൻ നിങ്ങളെ ഇതില് വരണം അവര് എന്ത് തെറ്റോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കു തന്നെ ആയിരിക്കും നിങ്ങളെ മേലിൽ ആണ് ആക്ഷൻ വരുക പിന്നെ നമുക്ക് ഒരുപാട് അവരെ എന്താ പറയുക സ്ട്രെസ്സ് കൊടുക്കാനോ അല്ലെങ്കിൽ വർക്ക് ലോഡ് വർക്ക് ലോഡ് നമുക്ക് ഓക്കെ ആണ് പക്ഷെ വേറെ രീതിയിൽ അവരെ ഹരാസ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും പാടില്ല അങ്ങനെ ആണെങ്കിൽ നമുക്ക് കമ്പനി ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാവും അല്ല കാര്യങ്ങൾ പറഞ്ഞത് എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ഇപ്പോൾ ഒരാളെ നമ്മൾ ഒഴിവാക്കിയതിന്റെ കാരണം ചെറിയൊരു ഈ ഡിസിപ്ലിനറി ആക്ഷനും അതായത് അവർ അയാളുടെ പെരുമാറ്റം കുറച്ച് കൈവിട്ട രീതിയില് പോയത് കൊണ്ട് ആണ് ആൾ ഓക്കെ ആയിരുന്നു വർക്കും കാര്യങ്ങൾ ഒക്കെ ഓക്കെ ആയിരുന്നു പക്ഷെ ആള് കുറച്ച് ഏങ്കർ കൺട്രോള് കുറവ് ആയിരുന്നു അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അതായത് ആ ഓക്കെ അപ്പോൾ നിങ്ങള് അത് പറഞ്ഞ് തരുന്ന കാര്യങ്ങൾ എന്ത് കൊണ്ട് ആണ് ഇത് പറഞ്ഞ് തന്നുവെന്ന് മാത്രം ഓക്കെ അപ്പോൾ നമുക്ക് എന്നേക്കാ ജോയിൻ ചെയ്യാൻ പറ്റുക ഈ മന്ത് ഇപ്പോൾ ഇരുപത്തിരണ്ട് ആയില്ലെ എന്നേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്കുതന്നെ ജോയിൻ ചെയ്യാൻ പറ്റുമോ ആ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഞാൻ കോൾ ലെറ്റർ നിങ്ങളുടെ മെയിലിലേക്ക് വരും നിങ്ങളുടെ റെസ്യുമ് ഇവിടെ കൊടുത്തിട്ട് പോവണം പിന്നെ ആധാർ കാർഡിൻ്റ ഒരു കോപ്പി അയക്കുക അല്ല അതിന്റെ ഒരു കോപ്പി ഇവിടെ കൊടുക്കണം ഓഫീസിൽ ആധാർ കാർഡിൻ്റ ഒരു കോപ്പി കൊടുക്കണം പിന്നെ നിങ്ങളുടെ ഒരു പഴയ ഐ ഡി കാർഡിൻ്റ ഒരു കോപ്പിയും കൊടുക്കണം ഓക്കെ പിന്നെ ഇപ്പോൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നിങ്ങൾക്ക് നമ്മുടെ കമ്പനി എല്ലാർക്കും പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി അക്കൗണ്ട് ഉണ്ടാവും കമ്പനി അക്കൗണ്ടിൽ നിന്ന് എല്ലാ മാസവും നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് ഒരു അക്കൗണ്ട് എടുക്കും അതിന് ആണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചത് ഫോട്ടോയും കാര്യങ്ങൾ ഒക്കെ കമ്പനി അക്കൗണ്ട് എടുത്ത് തരും ആ അക്കൗണ്ടിലേക്ക് ആണ് പൈസ വരുക ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞാൽ ഒരു സിമ്മും നിങ്ങൾക്ക് തരുന്നത് ആയിരിക്കും കമ്പനി ഓക്കെ അപ്പോൾ അതിൽ പക്ഷെ വേറെ നമ്പർ ഒന്നും സേവ് ചെയ്യാൻ പാടില്ല കമ്പനി സിമ്മിൽ നിന്ന് കമ്പനിക്ക് കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഓക്കെ ഓക്കെ നിങ്ങൾ അപ്പോൾ മൂന്ന് മാസം പെർമനെൻറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പും അതുപോല ഒരു മൊബൈലും കൂടെ വരുന്നെത് ആയിരിക്കും പെർമനെൻറ്റ് ആയിക്കഴിഞ്ഞാൽ കേട്ടോ അല്ലാണ്ട് അത് അപ്പോൾ റഫ് യൂസിന് വേറെ മൊബൈല് ഇത് മൊബൈല് കൈയ്യിൽ ഉണ്ടല്ലൊ അല്ലേ ആ ഓക്കെ ഇപ്പോൾ തൽക്കാലത്തേക്ക് സിസ്റ്റം കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും മൂന്ന് മാസം കഴിഞ്ഞ് നിങ്ങള് പെർമനെൻറ്റ് ആവുകയാണെന്ന് പറഞ്ഞാൽ ഒരു മൊബൈലും ഒരു ലാപ്ടോപ്പും കൂടി വരുന്നത് ആയിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് എന്നാൽ ഞാൻ വർക്കിൻ്റ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞുതരാം പിന്നെ അടുത്താഴ്ച അപ്പോൾ നിങ്ങള് എന്നാ ജോയിൻ ചെയ്യുന്നത് ഒന്നാം തീയ്യതി ആണോ ജോയിൻ ചെയ്യുന്നത് ആ ഒന്നാം തീയ്യതി ആണ് ജോയിൻ ചെയ്യുന്നത് എങ്കിൽ ഒരു ഇരുപത്തി എട്ടാം തീയ്യതി നിങ്ങൾ ഇവിടെ വരണം ഒരു രണ്ട് ദിവസത്തെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ആയിട്ട് ഒര് ട്രെയിനിംഗ് ഉണ്ടാവും അപ്പോൾ അത് നിങ്ങള് അറ്റൻഡ് ചെയ്യണം കുഴപ്പം ഒന്നും ഇല്ലല്ലോ അല്ലെ ആ ഓക്കെ അപ്പോൾ അത് ഒന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ഐഡിയ ഒന്ന് കിട്ടാൻ ഇപ്പോൾ നമ്മള് ജസ്റ്റ് കാര്യങ്ങള് പറഞ്ഞിട്ട് അല്ലെ ഉള്ളൂ എന്താണ് വർക്ക് അതിൻ്റ കാര്യങ്ങൾ ഒരു ഐഡിയ കിട്ടണ്ടേ ഓക്കെ അപ്പോൾ നമുക്ക് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതിന് അറ്റൻഡ് ചെയ്യാം ട്രെയിനിംഗ് ഒന്ന് അറ്റൻഡ് ചെയ്യണം കേട്ടോ അല്ല അതിൻ്റെ ഇത് കാര്യങ്ങൾ ഒക്കെ ഇതില് വന്നോളും ഭക്ഷണം കാര്യങ്ങളും നമ്മൾ അതിൻ്റ പൈസയും കാര്യങ്ങൾ ഒക്കെ കമ്പനി നിങ്ങൾക്ക് പേ ചെയ്യും കേട്ടോ ഓക്കെ അപ്പോൾ ശരി ഇപ്പോൾ എന്നാൽ ഇരുപത്തെട്ടാം തീയ്യതി കാണാം ഓക്കെ താങ്ക് യൂ